എൻ്റെ പ്രദേശ് ത്തെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ ഹിന്ദു ക്രിസ്റ്റ്യൻ മുസ്ലിം ഇവയൊക്കെയാണ് ഹിന്ദുക്കൾ തന്നെ പല അതിൽ ഉപവിഭാഗങ്ങൾ ഉണ്ട് ബ്രാഹ്മണർ ഉണ്ട് പിന്നെ ഈഴവർ ഉണ്ട് നായർ സമുദായത്തിൽ പെട്ടവർ ഉണ്ട് പിന്നേ പട്ടികജാതി പട്ടികവർഗ്ഗത്തിൽ പെടുന്നവരുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ പ അങ്ങനെ പല ഉപവിഭാഗങ്ങളും നമ്മുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻസ് ആണെങ്കിലും പല വിഭാഗങ്ങളുണ്ട് ഓർത്തോഡോക്സ് ജേക്കൊബൈറ്റ് പെന്തി പെന്തക്കോസ്ത് തുടങ്ങിയ വിഭാഗങ്ങളും നമ്മുടെ അടുത്തുണ്ട് മുസ്ലിംസ് അങ്ങനെ അധികമായി കാണപ്പെടുന്നില്ല വളരെ റെയർ ആയി അവിടെയും ഇവിടെയുമായിട്ട് കാണപ്പെടുന്നു